നമസ്ക്കാരം നമ്മള് ആ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ അപ്പോൾ ആ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണന്നറിയാൻ വേണ്ടിട്ടായിരുന്നു അത് എത്ര സ്കൊയർഫീറ്റ് റൂമ് പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള ഫെസിലിറ്റീസ് ഇനിയിപ്പോൾ അതിൻ്റെ അടുത്തുള്ള അമ്പലമോ പള്ളിയോ അങ്ങനെ സ്കൂള് ഹോസ്പിറ്റല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ടോ അതൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പറഞ്ഞുതരാമോ ആ ഓക്കേ ആയിരത്തെണ്ണൂറാ ആ ഓക്കേ ആ ഓക്കേ ആ ഓക്കേ അഞ്ച് മുറിലെ ആ ആ ഓക്കേ ഓക്കേ ആ ആ ആ ആ ഓക്കേ ഓക്കേ ഓക്കേ

ആ ആ ആ ആ ആ ആ അതെന്ത് മര എന്ത് മരങ്ങളാണ് എന്ത് മരങ്ങളാണ് അതെ പച്ചക്കറികള് സംഭവം അങ്ങനൊന്നുല്ലാലേ അങ്ങനത്തെ ഏരിയ അല്ലേ അതിന് അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള ഏരിയ കാര്യങ്ങളൊക്കെ ഇല്ലേ ഫ്രണ്ടില് ഇങ്ങനെ മറ്റെ ഇൻ്റർലോക്കിഡ് ആണോ മുറ്റം അതോ ആ ഓക്കേ എട്ട് കിലോമീറ്ററിന് അടുത്ത് അപ്പോൾ ഇത് ഉൽറോട്ട് ഉൾറോ ഉൾറോട്ടിക്കാണോ

ആറ് കിലോമീറ്ററല്ലെ

ഗവർമെന്റാ ഗവർമെന്റായിട്ട് പിന്നെ അടുത്ത് വീടുകള് കാര്യങ്ങളൊക്കെ എത്രയാണ് അവിടെ റൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനേ അങ്ങനെ കുറച്ച് ഇടുന്നയായിരിക്കും ബെറ്ററ് അല്ല കുറച്ച് റെഡിയാക്കുന്നതായിരിക്കും ബെറ്ററ് എന്ന് പറയുക നാൽപ്പത്തെട്ടിൽ നിന്ന് എത്രെയും കുറയാൻ പറ്റുവോ അത്രയും നല്ലത് ഇതിപ്പോൾ ഇതിപ്പോൾ എത്ര എന്ന് കൺസ്ട്രക്ട് ചെയ്തതാണ് ഡേയ്റ്റ് എത്ര വർഷം വിദേശത്തെ ആൾക്കാരാണോ ആ അപ്പോൾ ഫർണിച്ചറും കാര്യങ്ങള് ഓ ശരി

ഓ അത് ശരി

ആ ആ ഓക്കെ ഓക്കെ അതെന്തായാലും ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കേ